മാതൃ ഭാഷയിൽ അല്ലാതെ ഞാൻ വായിച്ച ഒരു പുസ്തകമാണ് എ പി ജെ അബ്ദുൽകലാമിൻ്റെ വിങ്സ് ഓഫ് ഫയർ എന്നുള്ളത് അത് ഒരു ഇംഗ്ലീഷ് പുസ്തകമാണ് അതിൽ കലാമിൻ്റെ ജീവിതത്തെയാണ് പ്രതിപാദിക്കുന്നത് കലാം രാമേശ്വരത്ത് ജനിച്ചു വളർന്ന ഒരു ചെറിയ വില്ലേജിൽ ചെറിയ ഗ്രാമത്തിൽ ജനിച്ച അദ്ദേഹം പിന്നീട് വളർന്നു വലുതായി എങ്ങനെ ഒരു സൈൻറ്റിസ്റ്റായി അതുപോലെ തന്നെ അത് പിന്നീട് പ്രസിഡൻറ് ഓഫ് ദ ഇന്ത്യ ആയി ഫോർമർ പ്രസിഡൻറ് ഓഫ് ഇന്ത്യ ആയത് വരെ എങ്ങനെയാണെന്നുള്ള അയാളുടെ ജീവിതത്തെ പറ്റിയാണ് അതിൽ പറയുന്നത് ആ ബുക്ക് ഒരുപാട് ചാപ്റ്ററുകളായിട്ടാണ് ഉള്ളത് നമുക്കാ ബുക്ക് എല്ലാ കടകളിലും ലൈബ്രറിയിലും ഒക്കെ നമുക്ക് ലഭിക്കുന്നതാണ് കൂടാതെ അത് വളരെ മനോഹരമായ ഒരു ബുക്കാണ് അയാളുടെ ജീവിതത്തെ അയാളുടെ ജീവിത ത്തിലെ ഓരോ പ്രതിസന്ധികളും ഓരോ ഘട്ടങ്ങളും അതിൽ വളരെ കൃത്യമായി വിവരിച്ചിട്ടുണ്ട്